നീന്തൽ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് നീന്തൽ പഠിച്ചിട്ടില്ല ആദ്യമൊക്കെ ഇങ്ങനെ വെള്ളം പൊങ്ങുന്നത് വെള്ളപ്പൊക്കത്തിന് അകത്താണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതും പല പ്രാവശ്യവും പരാജയമായിരുന്നു പല പ്രാവശ്യവും ഞാൻ നീന്തലിന് ഇറങ്ങി പോയിട്ടുണ്ട് ഈ വെള്ളം ഓരോ വർഷവും വെള്ളം പൊങ്ങുന്ന സമയത്ത് ആ സമയത്ത് ഞങ്ങളുടെ അവിടെ വെള്ളം ഈ ആറ്റു വെള്ളം വരാറുള്ളു ആ വെള്ളത്തിലാണ് ആ നീന്താൻ പോയിട്ടുള്ളത് പല പ്രാവശ്യവും നീന്തൽ പരാജയമായിരുന്നു ശിഷ്യന്മാരൊന്നുമില്ലാതെ വെള്ളപ്പൊക്കത്തെ അയിൻ്റെ വെള്ളം കുറഞ്ഞ ഭാഗത്തു നിന്ന് കാലും കൈയും ഇട്ടൊക്കെ അടിച്ചിട്ടുള്ളതേയുള്ളു അല്ലാതെ എനിക്ക് ശരിക്കാനും ശരിക്കും പഠിക്കാൻ ഇന്നുവരെയും സാധിച്ചിട്ടില്ല പഠിക്കണമെന്ന് ഇപ്പഴ് ഒട്ടും ആഗ്രഹവുമില്ല പക്ഷേ ഇനി ഇപ്പം ഇത്ര പ്രായമായില്ലേ ഇനി ഇപ്പോൾ എന്തോ നീന്തൽ പഠിക്കാനാണ് എന്നൊരു തോന്നൽ കൊണ്ടല്ല മറിച്ച് അതിൻ്റെ വെള്ളത്തിനോടുള്ള ഭയവും മറ്റു കാര്യങ്ങളും കൊണ്ടാണ് അതിന് തുനിയാത്തത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഈ വെള്ളത്തിലുള്ള ഭയം കൊണ്ട് അത് വെള്ളത്തിലോട്ട് ഇറങ്ങാനോ മറ്റും സാധിക്കത്തില്ല ഒരു അര നീര് വെള്ളത്തിന് താഴോട്ട് ഞാൻ ഇതുവരെയും ഇറങ്ങിയിട്ടില്ല ഈ വെള്ളത്തിലെ ഭയം കൊണ്ട് ഇനിയും ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇനി ഇപ്പം വെള്ളത്തിൽ പോയാൽ തണുപ്പ് പിടിക്കയൊക്കെ കൊണ്ട് അത് അസാധ്യമാണ് ഇനിയും പഠിക്കണമെന്ന് വലിയ താല്പര്യമൊന്നും എടുക്കുന്നില്ല കാരണം അത് ഇനി ഇപ്പോൾ അസാധ്യമായതു കൊണ്ടാണ് അങ്ങനെ ഒരു പാർട്ട് തുനിയാത്തത് കാരണം ഇത് പിള്ളേർ ചെറു പ്രായത്തിലേ പഠിച്ചു ശീലിക്കേണ്ട ഒരു തൊഴിലാണ് നീന്തൽ അത് പ്രായം കവിഞ്ഞു കഴിഞ്ഞിട്ട് നീന്തൽ പഠിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുമെന്ന് ആ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അതൊരു പ്രായോഗികമായ കാര്യമാണ് എന്നാൽ ചിലർ ചിലരൊക്കെ അങ്ങനെ പഠിക്കുന്നത് ഇതുകൊണ്ട് അവർ അതിൽ വിജയം കാണുന്നുമുണ്ട് എന്നെ സംബന്ധിച്ചടത്തോളം എനിക്ക് ഇത് അത്ര പ്രായോഗികമായി ഒരു ഒന്നായിട്ട് പോവാൻ സാധിക്കുന്നില്ല അത് ഇതുപോലെ നീന്തൽ കുളത്തിൽ പിന്നെ ബ്ലോക്കാകുകയോ തിരമാലകളിൽ ഇറങ്ങുകയോ ഒന്നും ഇതുവരെയും ഞാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് കാര്യമായ അറിവ് ഇല്ല എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് പിന്നെ ആ ഒരു മാർഗ്ഗം എന്താണ് എനിക്ക് അറിയത്തില്ല നീന്തൽ കുളം അവിടെ ചാടിയ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ല അപ്പ എന്തായാലും ഇനിയുള്ള ഈ ഈ കാലത്ത് ഇനിയും നീന്തൽ പഠിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല